ഇല്ല ട്രയൽ റണ്ണിങ് അല്ലെങ്കിൽ എന്താ സ്പ്രിന്റ് ഇടവേളകൾക്കുള്ള ബദൽ റണ്ണിങ് വർകൗട്ടുകൾ ഇല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനും ജിമ്മിൽ പോവുന്നുണ്ട് ജിമ്മിൽ പോയിട്ട് നന്നായിട്ട് വർകൗട്ട് ചെയ്യുന്നുണ്ട് ജിം ജിമ്മാണ് മെയിന് ജിമ്മില് പോവുന്നുണ്ട് മാനന്തവാടിയിലുള്ള ഡയാന ജിമ്മ് അവിടെ പോയിട്ടാണ് ജിമ്മ് ചെയ്തിട്ടാണ് എൻ്റെ ഫിറ്റ്നസ് ഞാൻ സൂക്ഷിക്കുന്നത് എൻ്റെ ഫിറ്റ്നസ് അതുപോലെത്തന്നെ ആരോഗ്യ ആരോഗ്യവുമായിട്ടുള്ള ഫിട്നെസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരോഗ്യം അതുപോലെത്തന്നെ അസുഖങ്ങളില്ലാതെ നിലനിർത്തുന്നത് വണ്ണം ഒക്കെയുണ്ട് പക്ഷേ എന്നാലും വേറെ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാതെ അത് മൈന്റൈൻ ചെയ്ത് ഹെൽത്തി ആയിട്ട് പോവുന്ന ഒരു ലൈഫ് സ്റ്റൈൽ മൈന്റൈൻ ചെയ്യാനാണ് ഞാൻ ഫിറ്റ്നസ്സിലേക്ക് ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്